ഹലോ സാറേ സാറേ സാറേ എൻ്റെ പേര് ജോയൽ തോമസുന്നാണ് സാറേ എൻ്റെ ഫോണ് മിസ്സായി പോയി സാറേ ട്രെയിനിൽ വെച്ച് ട്രെയിനിൽ വെച്ച് ആ സാറേ

സാറേ ട്രെയിനിൽ വെച്ചാണ് എൻ്റെ ഫോൺ മിസ്സായത് ഞാനത് യാത്ര ചെയ്തോണ്ടിരുന്നപ്പോൾ പെട്ടെന്നെൻ്റെ ഫോണീന്ന് ട്രെയിൻ ആ ഇത് കംപ്ലയി മിസ്സായി പോയി ഇപ്പം ഞാനത് പെട്ടന്ന് തന്നെ നമ്മുടെ റെയിൽവേ ഉദ്യോഗസ്ഥരെ അറിയിക്കാൻ നോക്കി പക്ഷേ നടന്നില്ല അപ്പോൾ സാറേ അതിൻ്റടുത്ത വല്ലോം കാര്യങ്ങളൊന്ന് പറയമോ എൻ്റെ കോച്ചിൽ വച്ചാണിത് മറന്ന് പോയത് ഇല്ല സാറേ എൻ്റെ എൻ്റെ വീട് കൈനഗരീലാണ് സാറേ എൻ്റെ നിയർ ബൈ സ്റ്റേഷൻ നെടുമുടി പോലീസ് സ്റ്റേഷനാണ് പക്ഷേ ഇത് സംഭവിച്ചിരിക്കുന്നത് ആലപ്പുഴ നമ്മുടെ റെയിൽവേ സ്റ്റേഷനവിടെ എത്തുന്നതിന് മുൻപാണിത് സംഭവിച്ചത് ആ അപ്പം സാറേ ഇത് പെട്ടന്ന് തന്നെ ഇതിപ്പം ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഇപ്പം സമയം അധികം ആയിട്ടില്ല അപ്പം സാറൊന്ന് ജി ഡി എൻട്രെഴുതീട്ട് സാറേ ഇതൊന്ന് സൈബർ സൈബർ സെല്ലിലെ വല്ലോം നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ സൈബർ സെല്ലിൽ വല്ലോം കൊടുത്തിട്ട് വല്ലോം പെട്ടന്ന് വല്ലോം എനിക്കൊന്ന് ഇതാക്കി തരാൻ പറ്റുമോ ഒന്ന് കണ്ടു പിടിച്ച് തരാൻ പറ്റുമോ നമ്പറൊന്ന് ലൊക്കേഷനൊന്ന് കണ്ടു പിടിച്ചിട്ട് സാറേ എൻ്റെ ഫോൺ ആ ഐ ഫോണാണ് സാർ ഐ ഫോൺ ടെൻ എക്സാണ് മോഡല് ആ അപ്പം അത് കുഴപ്പമില്ലാത്തൊരു രണ്ട് വർഷം പഴക്കമുള്ള ഫോൺ തന്നെയാണപ്പം അത് എനിക്ക് തോന്നുന്നു ഇനി ആരെങ്കിലും എടുത്തിട്ടുണ്ടോന്ന് നന്നായിട്ട് സംശയമുണ്ട് പക്ഷേ അവർക്ക് ഇത് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല എൻ്റെ സെക്യൂരിറ്റി ഇതായതോണ്ടാക്സസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ എന്നാലും സാറേ ഒന്ന് പെട്ടന്ന് തന്നെ ഒന്ന് സാറേ അതിൻ്റെ പ്രൂഫയിന് പെട്ടന്ന് അതൊരു ബ്ലാക്ക് ഗ്രേ മോഡൽ അതൊരു ഫോണാണ് പക്ഷേ അതിനൊരു കവറിട്ടിട്ടുണ്ടൊരു ആ ഒരു വയലറ്റ് കേസ് കവറുണ്ട് പക്ഷേ അത് ഇപ്പം മാത്രമെങ്കിൽ ഇല്ലില്ല ഒന്നും ഇല്ല ഒന്നും ഇല്ല സാറേ ഈ ഒരു ഫോൺ മാത്രമാണ് ചെയ്തത് ഇപ്പം പറയാണെങ്കിലിനി ആരെങ്കിലും എടുത്തതാണോ ഇനി അതോ ഞാനിനി അവിടെ വല്ലതും മറന്ന് വെച്ചിട്ടാണോന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് ഇല്ല സാറേ ഞാൻ ചാർജ് ചെയ്യാനായിട്ട് അതിന് മുൻപ് ഒരു മണിക്കൂറ് മുമ്പായിരുന്നു അതിന് ശേഷം ഞാൻ അതൂരി ഞാനത് കയ്യിലെടുത്തായിരുന്നു ഇനി ഞാനാ സീറ്റിൽ വെച്ചിട്ടുണ്ടോന്ന് എനിക്കൊരു ഡൗട്ടുണ്ടത്രയും കൃത്യമായിട്ടെനിക്ക് ഓർമ്മയില്ല ആ അപ്പതാണ് ആ ഓക്കെ ശരി സാർ ശരി സാറേ അതിനകത്ത് സാറൊന്നാ നമ്പറൊന്ന് നോട്ട് ചെയ്യാവോ ആ ഞാൻ പറയാൻ പറഞ്ഞ് തരാമല്ലോ എഴുപത്തേഴ് മുപ്പത്താറ് ആ സാറേ എഴുപത്തേഴ് മുപ്പത്താറ് അറുപത് അറുപത് മൂന്ന് ഏഴ് പൂജ്യം അഞ്ച് എൻ്റെ പേര് ജോയൽ തോമസ് ഓക്കെ സാറേ ഇതെൻ്റെ സെക്കൻട്രി ഫോണാണ് സാറിതിലൊന്ന് വിളിച്ചാൽ മതി ഈ നമ്പറിൽ ഓക്കെ ശരി ശരി സാറേ ശരി എന്നാൽ